നൃത്തം ഭയങ്കരമായി നമ്മളെ പിന്നെ ഹെൽത്തിന് നന്നായിട്ട് അതായത് നന്നായിട്ട് ഹെൽത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഇതാണ് നൃത്തം അതായത് നമ്മുടെ ബോഡി കംപ്ലീറ്റായിട്ട് നന്നായിട്ട് അനങ്ങാനും അതല്ല അതേപോലെതന്നെ മനസിന് വളരെ സന്തോഷം നൽകുന്നതുമാണ് നൃത്തം അതായത് ഇപ്പം നമ്മുടെ നാട്ടില് നിലവിൽ ഉള്ളൊരു നൃത്തമെന്നുപറയുമ്പോൾ സൂംബ ഡാൻസെന്ന് പറയും അതായത് നന്നായിട്ട് പാ മ്യൂസിക് വെച്ചിട്ട് ആ മ്യൂസിക്കിന് അനുസരിച്ച് പി നമ്മളെക്കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച് അപ്പം നന്നായിട്ട് വിയർക്കുകയും മേല് നന്നായി അനങ്ങുകയും ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നു അതിന് അതിലുപരിയായിട്ട് നമുക്ക് നൃത്തം ചെയ്യുന്നത് ആ മ്യൂസിക്കിൻ്റെ സഹായത്തിലായത് കൊണ്ട് മനസ് വല്ലാതെ നല്ല സന്തോഷത്തിലേക്ക് കൊണ്ടെത്താനും സഹായിക്കുന്നു നൃത്തം ശാരീരികാവസ്ഥ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു പേശികളെ ശ ശക്തിപ്പെടുത്തുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കപ്പെടുത്തുന്നു ശ്വാസപ്രവർ ശ്വാസപ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പിന്നേ മാ ഭാവനാശക്തി വികസിപ്പിക്കുന്നു പിന്നെ സൃഷ്ടിപരമായ ചിന്തകളും വികാരവികാ വികാരവികാസവും സാംസ്കാരിക ബോധവും നൃത്തത്തിലൂടെ വളർത്തുന്നു പിന്നേ ഭാവ മാനസികമായിട്ടുള്ള ഭാരവും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു നൃത്തം ഒരു മികച്ച വ്യായാമമാണെന്നും മാനസികസമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം നൽകാനും ഊർജസ്വലത വർധിപ്പിക്കാനും സഹായിക്കുന്നു പിന്നെ നമ്മുടെ സമൂഹത്തോട് ഇടപെടുന്ന ഒരൂ കാര്യ കാര്യങ്ങള് കൂടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കപ്പെടുന്നു കൂട്ടായ്മയും സുഹൃത്ത്ബന്ധങ്ങളും സാമൂഹിക ഇടപെടലും നൃത്തത്തിലൂടെ മെച്ചപ്പെടുത്തുന്നു പിന്നെ മെയ്നായിട്ട് നമുക്ക് ആത്മവിശ്വാസം വർധിപ്പിക്കുന്നു സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദത്തെ എളുപ്പം മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ ഏറ്റവുംതന്നെ നന്നായിട്ട് ആരോഗ്യം മെയിറ്റെയ്ൻ ചെയ്യാൻ സഹായിക്കപ്പെടുന്നു നൃത്തം വളരെ എന്താണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊര് കായിക വിനോദം തന്നെയാണ് എക്സസൈസെന്ന് പറയുന്നത് പിന്നെ മ്യൂസിക് കേക്കുന്നതുതന്നെയാണ് മ മനുഷ്യർക്ക് ഏറ്റവും വലിയ ഒരിത് ഒരു എന്താണ് മാനസികമായിട്ട് നല്ല ഒരു ഉന്മേഷം കിട്ടും അതും രാവിലെയുള്ള എക്സസൈസാണെങ്കിൽ സൂംബാ ഡാൻസൊക്കെ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹെൽത്തായാലും നമ്മുടെ സ്കിന്നിനെ ആയാലും പിന്നെ ഇതുചെയ്യുന്നതോടൊപ്പം നമുക്ക് നെറ നമ്മ് നിറയെ വെള്ളംകുടിക്കാനും സഹായിക്കുന്നു ആ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻടോണായാലും എല്ലാം നല്ല ഇതുപോലെ വർദ്ധിക്കാൻ സഹായിക്കപ്പെടുന്നു ഒത്തിരി ഒത്തിരി ഒത്തിരി സവിശേഷതകള് നൃത്തത്തിനുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സസൈസിൽ ഏറ്റവും നല്ലൊരു എക്സസൈസെന്നുവേണം പറയാൻ ഈ നൃത്തം പിന്നേ എന്താണ് നല്ല ഒരു ഒരു ദിവസം തുടങ്ങുന്നതിന് ഏറ്റവുംനല്ല ഉന്മേഷവും ഊർജവും നൽകുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ മോർണിങ് ആക്ടിവിറ്റീസ് തുടങ്ങുന്ന ആ സമയം ചെയ്യുന്നതുപോലെ ഇരിക്കും ബാക്കി അന്നത്തെ ദിവസം മുഴുവൻ മുമ്പോട്ട് പോവുന്നത് അല്ലെങ്കിൽ നമ്മള് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് നൃത്തവും എക്സസൈസും കൂടിയാകുമ്പോൾ ഒരു ദിവസം വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോവും പിന്നെന്താണ്ന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ ഒത്തിരി എക്സസൈസും കാര്യങ്ങളും ഉണ്ടല്ലൊ അപ്പം പക്ഷെ എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ട്ട എന്നെ സംബന്ധിച്ചു പേഴ്സണലായിട്ട് പറയുവാണെങ്കില് എനിക്കിപ്പോൾ നൃത്തം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം പിന്നെ ഈയൊരു എക്സസൈസുമായി ബന്ധപ്പെട്ടിട്ടൊരു നൃത്തമാകുമ്പഴത്തേക്കും നമുക്ക് ഇരട്ടി സന്തോഷവും ഉന്മേഷവുമൊക്കെ ക്കെ തരും അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കും നമ്മുടെ സൗന്ദര്യം കൂടും നമുക്ക് പ്രായം കുറയും നമ്മുടെ ശരീരം നല്ലത് പോലെ മെലിഞ്ഞ് ഉഷാറാവും അത് അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിക്ക് തന്നെ നല്ല മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ എക്സസൈസ് ഒന്നുമില്ലാണ്ട് മടിപിടിച്ച് വീട്ടിൽ ഇരുന്നാൽ അസുഖങ്ങളും പിന്നെ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കുള്ള ഗുളികകളും കഴിച്ച് നമ്മുടെ ജീവിതം മരുന്നുകളുടെ കൂടെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഇപ്പം ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നുംതന്നെ പറ്റത്തില്ല ഇതാകുമ്പോൾ രാവിലെയൊരു സിക്സോ ക്ലോക്കിന് ഒരു എക്സസൈസ് ഒരു സിക്സ്റ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ എന്താ ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒന്നരമണിക്കൂറ് ചെയ്യുമ്പഴത്തേക്കും അതിൻ്റേതായ ഉന്മേഷവും ഊർജസ്വലതയും കാര്യക്ഷമതയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കാൻ തന്നെ താല്പര്യം തോന്നും നമുക്ക് ഒരു മടുപ്പ് തോന്നത്തില്ല പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുന്നത്